ശരി അപ്പം മഴക്കാലം മഴക്കാലത്ത് ഇഞ്ചി നട്ടു വിചാരിച്ചോളൂ അപ്പം ആ ഇഞ്ചിയിലോട്ട് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല നമ്മുടെ അത് മുഴുവൻ നമ്മള് എത്രയും എഫക്ട് എടുത്ത് അത് നട്ടു അതൊക്കെ നശിച്ച് പോവും അപ്പോൾ നമ്മൾ എന്തുചെയ്യാം ആ ഇഞ്ചി പറിച്ച് വിൽക്കുക അത് പറിച്ച് വച്ചിട്ട് ആ വെള്ളം വെള്ളം അങ്ങ് ഇറങ്ങുന്ന സമയാവുമ്പം അവിടെ കപ്പ നടുക അതായത് ഒരു വിള നട്ട് നശിച്ചു എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ അടുത്ത വിള അതിന് ആ ഒരു കാലാവസ്ഥയിൽ അഡോപ്റ്റായിട്ട് എന്തെങ്കിലും നമ്മൾ വച്ച് വയ്ക്കാൻ നോക്കണം അല്ലാതെ നമ്മൾ ആ ഒരു വിള നശിച്ചു കാലാവസ്ഥേനെ ഡിപ്പെൻ്റ് ചെയ്തിട്ടാണ് ഓരോന്നുള്ളത് മഴക്കാലത്താണെങ്കിൽ മഴക്കാലത്ത് ഒത്തിരി വാഴ നശിച്ച് പോകുന്നതൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ നശിച്ച് പോയതിനെക്കുറിച്ച് അത് നശിച്ച് കാലഘട്ടം അതിൻ്റെ ആ സാഹചര്യം ഓർത്ത് വിഷമിക്കാതെ അതിന് ആ സ്ഥലത്ത് വേറെ എന്ത് സ്യൂട്ട് ആകുമെന്ന് നോക്കുക അതിനനുസരിച്ചുള്ള വിളകൾ നമ്മൾ വയ്ക്കുക അതേ നമുക്ക് നടക്കുകയുള്ളു കാരണം ഈ നവംബർ മാസമൊക്കെ ആവുമ്പോൾ സാധാരണ നമ്മൾ ഇടവേള കൃഷികളൊക്കെ പയറൊക്കെ വയ്ക്കും പയറ് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേനൽ മഴയുണ്ട് പയറ് ആ സമയത്ത് കുറച്ച് വേനൽമഴ പെയ്യുമ്പോൾ നമ്മുടെ ഈ പയറിൻ്റെ പൂവൊക്കെ പോവും പയറിന് ഒരു വെയില് വേണം ഒത്തിരി മഴ വേണ്ടാത്തൊരു സാധനമാണ് പയർ അപ്പം അതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ഇടവേള കൃഷിലിങ്ങനെയാവുമ്പോൾ നമ്മൾ കുറേ ക്യാഷൊക്കെ മുടക്കി ഇഞ്ചി വാഴ അങ്ങനെയുള്ള സാധനമൊക്കെ വച്ച് നശിച്ച് പോവുമ്പോൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അത്ര നെല്ലൊക്കെ നെല്ല് കൊയ്തിട്ട് മഴ പെയ്ത് പോയ സന്ദർഭമൊക്കെയുണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ആ തളർച്ചയെ നശിച്ച നിങ്ങൾക്കെന്ത് മറ്റൊരു വഴിയെന്താണെന്ന് നമ്മൾ അപ്പോൾ ആലോചിക്കണം അല്ലാതെ അതോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല നമ്മൾ വേറെ മാർഗ്ഗം കാണണം